തീർച്ചയായും രണ്ട് തലമുറയാണ് വളർന്നുവരുന്ന തലമുറയും അതായത് ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും നല്ല ഡിഫറെൻസ് ആണ് അവർ തമ്മിൽ ഇടയ്ക്കുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ ചിന്താഗതിയിൽ ആയാലും എല്ലാ കാര്യത്തിലും ചിന്താഗതിയില് ന്യൂ ജനറേഷൻ എന്നുവച്ചാൽ പുരോഗമന ചിന്താഗതിയാണ് എല്ലാം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ് പഴയ പഴയ കാർന്നോമാരാണെങ്കില് കുറേ അന്ധവിശ്വാസങ്ങളും കീഴ്വഴക്കങ്ങളും ഇപ്പഴും ഫോളോ ചെയ്യുന്നവരാണ് ആറുമണിക്ക് ശേഷം സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല പെണ്ണുങ്ങളെല്ലാം പണി പഠിക്കണം പതിനെട്ട് വയസ്സിനുള്ളില് കെട്ടിച്ച് ബാധ്യതകൾ ഒക്കെ തീർക്കണം അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ആണ് ഭൂരിപക്ഷവും പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കുക നല്ലൊരു ജോലിയിൽ എത്താൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് മതി വിവാഹം കുട്ടികൾ പിന്നെ ഏറ്റവും ഇംപോർട്ടൻറ് വിദ്യാഭ്യാസമാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിപ്പം ഈ നടുക്ക് നിൽക്കുന്ന ഈ ജനറേഷൻ ഉണ്ടല്ലോ അതായത് ന്യൂ ജനറേഷൻ്റെയും വെരി ഓൾഡ് ജനറേഷൻ്റെയും നടുക്ക് മധ്യഭാഗത്ത് നിൽക്കുന്നവർക്ക് രണ്ട് ഏകദേശം രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അവർക്ക് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ചിന്താഗതിയും മനസ്സിലാക്കാൻ പറ്റും പഴയവരുടെ ചിന്താഗതിയും മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെട്ടോ എന്നെ സംബന്ധിച്ചിടുത്തോളാം